പണ്ട് എടുത്ത ഫോട്ടോകൾ ഉണ്ട് അത് ഒരു ഫോട്ടോ ഉള്ളൂ അത് ചെറുപ്പത്തിൽ എടുത്തൊരു ഫോട്ടോ ആണ് പക്ഷേ അന്ന് എടുത്ത ഒരു ഫോട്ടോയിൽ നിന്നും ഇന്നത്തെ ഒരു ഫോട്ടോയെ കുറച്ചു വ്യത്യാസങ്ങൾ ഉണ്ട് വളരെ എന്താണ് വളരെ നല്ല ഒരു വ്യത്യാസം അതിനകത്ത് കാണാൻ സാധിക്കും പിന്നേ എന്നു പറയുകയാണെങ്കിൽ അന്നത്തെ ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരുപാട് കളർ കോമ്പിനേഷനൊന്നും ഇല്ല പക്ഷേ ഇന്നത്തെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വളരെ കോംമ്പിനേഷൻ ഒരു ഇത് വ്യത്യാസം കാണാൻ സാധിക്കും അന്നത്തെ ഒരു ഫോട്ടോയുടെ ഇതെന്ന് പറയുമ്പോൾ ക്യാമറയ്ക്കും അതിൽ എടുക്കുന്ന ഒരു ഫോട്ടൊയ്ക്കും ഒരു ഡിഫറൻസ് ഉണ്ട് എന്നു പറയുമ്പോൾ നമുക്ക് ഫോട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഫോണിൽ എടുക്കാം ഫോണിൽ എടുക്കാം പക്ഷേ ഒരു ക്വാളിറ്റി ഉണ്ടാവും പെട്ട അതിന് ഒരു നല്ല ഒരു രീതി ഒരു മാറ്റം ഉണ്ടായിരിക്കും അന്നത്തെ ഫോട്ടോയും ഇന്നത്തെ ഡ്രസ്സിങ് ആൻഡ് അങ്ങനെ കുറച്ചു കാര്യങ്ങൾ ഉണ്ട് വളരെ വ്യത്യാസമാണ് ആ ഫോട്ടോ എന്നു പറയുന്നത് പണ്ടെടുത്ത ഫോട്ടോകളുടെ പ്രിൻ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പുതിയ ഡിജിറ്റൽ രീതിയിലുള്ള ഫോട്ടോയെ ഫോട്ടോകളും പഴയ ഫോട്ടോയും തമ്മിൽ നല്ല ഒരു വ്യത്യാസം ഇവിടെ കാണുവാൻ സാധിക്കും പഴയ ഫോട്ടോകൾക്കാണ് വൈകാരികമായ ഒരു മൂല്യമുണ്ടെന്ന് ഞാൻ ഇന്നത്തെ ഇതിനെ കാട്ടി മൂല്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പണ്ടത്തെ കാട്ടിലും നല്ല ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഉള്ളത്